നമ്മുടെ ഇന്നത്തെ ജീവിതത്തിൽ നമുക്ക് നമ്മൾ ഉപജീവനത്തിനായി നമ്മൾ എടുക്കുന്ന വിവിധ തൊഴിലുകളുണ്ട് ആ തൊഴിലുകളിൽ ഉപരിയായിട്ട് നമുക്ക് നമ്മുടെ ഒരു അതിജീവനത്തിനായിട്ടോ ഉപജീവനമല്ല അതിജീവനത്തിനായിട്ടോ ഒരു വിനോദ ഉപാധിയൊക്കെയായിട്ടോ നമ്മൾ ഒരു ചില കാര്യങ്ങൾ ഏറ്റെടുക്കാറുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളിൽ എൻ്റെ ജീവിതത്തിൽ ഒരു കാര്യമാണ് വായനയും എഴുത്തുമൊക്കെ അത് വളരെ വ്യാപകമായ രീതിയിൽ ഇല്ല ചെറിയ രീതിയിലൊക്കെ നമ്മൾ തുടരുന്നുണ്ട് ആ എഴുത്തുകളൊക്കെ നമ്മളൊരു എഴുത്തും വായനയും നമ്മുടെ ദിനചര്യയുടെ ഭാഗമായിത്തന്നെ ഒരു അധ്യാപകനെന്ന നിലയ്ക്ക് ഒരു സെക്കൻ്ററി ലെവലിലുള്ള ഒരു അധ്യാപകനെന്ന നിലയ്ക്ക് എനിക്ക് അത് ഏറ്റവും ഭംഗിയായിട്ട് നിർവഹിക്കാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ അതിനുവേണ്ടി നല്ല വായന പുസ്തകവായന പത്രവായന ഒക്കെ ആവശ്യമാണ് അതോടൊപ്പം തന്നെ നമുക്ക് ഈ ചില കുറിപ്പുകൾ നമുക്ക് വായിൽ നിന്ന് ലഭിക്കുന്ന കാര്യങ്ങൾ കുറിച്ചുവെച്ച് അതിനെ നമ്മൾ വീണ്ടും എടുത്ത് ഇതുപോലുള്ള എഴുത്തിനായിട്ട് ഇരിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾക്ക് വീണ്ടും എടുത്തത് പ്രയോജനപ്പെടുത്താനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ ഈ എഴുത്ത് ഒരു ദിനചര്യയാണെന്ന് ചോദിച്ചാൽ അല്ല പക്ഷേ എഴുത്തൊരു ഒരു ഹോബിയായിട്ട് ഒരു ഒരു വിനോദ ഉപാധിയായിട്ടും അതേസമയം നമ്മുടെ ഒരു നമ്മുടെ ഒരു പ്രത്യേക സവിശേഷമേഖലയായിട്ടും നമ്മൾ അത് പരിപാലിക്കുന്നുണ്ട് അപ്പോൾ ഈ എഴുത്ത് എന്നു പറയുമ്പോൾ നമുക്ക് അറിയാം അവിടെ ഒരുപാട് മാധ്യമങ്ങളുടെ കാര്യം പറഞ്ഞ കണക്കിന് ഒരുപാട് സ്വാതന്ത്ര്യം വേണ്ട കാര്യമാണ് ഒരുപാട് തിരിച്ചറിവുകൾ വേണം അതുപോലെത്തന്നെ നമ്മളെ നമ്മുടെ രാജ്യത്തെക്കുറിച്ച് രാജ്യത്തിൻ്റെ നിയമങ്ങളെക്കുറിച്ച് അതുപോലെത്തന്നെ നമ്മുടെ സംസ്കാരത്തെക്കുറിച്ച് ഒക്കെ ബോധ്യങ്ങൾ വേണം ഭാഷയെക്കുറിച്ചുള്ള നൈപുണ്യം വേണം അതുപോലെത്തന്നെ മൂല്യങ്ങൾ നഷ്ടപ്പെടാത്ത രീതിയിൽ അവതരിപ്പിക്കാനുള്ള ശ്രമം ഉണ്ടാവണം നമ്മൾ മതേതരരാജ്യമാണ് നമ്മൾ മതേതരത്വ ത്തിന് കളങ്കം ഉണ്ടാക്കാത്ത രീതിയിലുള്ള നമ്മുടെ ചിന്തകളും ഭാഷയും എഴുത്തുമൊക്കെ ആവശ്യമാണ് നമ്മൾ എഴുത്തിലൂടെ ആരെയും തേജോവധം ചെയ്യാതെയും വ്യക്തിഹത്യ നടത്താതെയും രാജ്യത്തെ ഹനിക്കാതെയും നിയമങ്ങളെ നമ്മൾ ലംഘിക്കാതെയും അതിന് ആഹ്വാനം ചെയ്യാതെയും ജനങ്ങൾക്ക് പ്രയോജനപ്രദമായ രീതിയിൽ ആശയങ്ങളോ ചിന്തകളോ ഒക്കെ നമ്മൾ ഭാഷകളിലൂടെയും വാക്കുകളിലൂടെയും ഒക്കെ നൽകി വരാറുണ്ട് ആ എഴുത്തിൽ അച്ചടക്കം പാലിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ സഭ്യത സഭ്യതയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഭാഷയിൽ ഏറ്റവും സഭ്യത പാലിക്കുക നല്ല ഭാഷ ആ നല്ല ഭാഷയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാനായിട്ട് ശ്രമിക്കുക ആ അത് ശ്രമിക്കുന്ന ആളുകൾക്ക് ഏറ്റവും മികച്ച രീതിയിൽ അതിനെ ഉൾക്കൊള്ളാനായിട്ടും കഴിയണം അപ്പോൾ ലളിതമായിരിക്കണം ലളിതമായിരിക്കണം അതേസമയം നല്ല ഭാഷയായിരിക്കണം നന്മയുള്ള ഭാഷയായിരിക്കണം അതേസമയം കരുത്തുള്ള ശക്തമായ മൂർച്ചയുള്ള ഭാഷയുമായിരിക്കണം നമ്മൾ വിമർശിക്കുമ്പോൾ കാര്യങ്ങളെ വിമർശിക്കുമ്പോൾ അതിനനുസൃതമായ ഭാഷയായിരിക്കണം പക്ഷേ നമ്മൾ ആസ്വാദനപരമായ കാര്യങ്ങൾ എഴുതുമ്പോൾ അതിനനുസൃതമായ ഭാഷയായിരിക്കണം എഴുത്തിലെ അച്ചടക്കം എന്ന് പറയുന്നത് എഴുത്തുകാരൻ്റെ അച്ചടക്കം തന്നെയാണ് ഭാഷയുടെ അച്ചടക്കമാണ് അപ്പോൾ എഴുത്തിൽ നമ്മൾ സൃഷ്ടിക്കേണ്ടതായ അച്ചടക്കം എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ നമ്മുടെ സഭ്യതയുടെ സഭ്യതയുടെ അതിരുകടക്കാൻ പാടില്ല കലാപ ആഹ്വനങ്ങൾ പാടില്ല രാജ്യവിരുദ്ധമായ കാര്യങ്ങൾ ദേശവിരുദ്ധമായ കാര്യങ്ങൾ പറയാൻ പാടില്ല അല്ലെങ്കിൽ എഴുതാൻ പാടില്ല മതേതരത്വത്തിന് കളങ്കമുണ്ടാകുന്ന രീതിയിലുള്ള കാര്യങ്ങൾ പറയാൻ പാടില്ല ജനങ്ങളുടെ സുരക്ഷിതത്വത്തിനും ജനങ്ങളുടെ നമ്മുടെ സംസ്കാരത്തെയൊക്കെ അവഹേളിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകരുത് എപ്പോഴും ജനങ്ങളെ മുൻനിർത്തി ജനങ്ങൾ ഇതിനെ എങ്ങനെ പോസിറ്റീവായിട്ട് എടുക്കാമെന്ന് എടുക്കണം അല്ലെങ്കിൽ എടുക്കേണ്ടത് എങ്ങനെയാണ് എന്നൊരു കാഴ്ചപ്പാടിലൂടെ ആയിരിക്കണം ഈ ഒരു കാര്യങ്ങൾ നമ്മൾ അവതരിപ്പിക്കേണ്ടത് അതിന് എന്താ നല്ല വായന ആവശ്യമാണ് നല്ല ചിന്ത ആവശ്യമാണ് ധാരാളം പ്രസംഗങ്ങൾ ധാരാളം സെമിനാറുകൾ ധാരാളം സിമ്പോസിയങ്ങൾ ഒക്കെ നമ്മൾ അറ്റൻഡ് ചെയ്യണം അല്ലെങ്കിൽ അത് അതിലൊക്കെ നമ്മൾ പങ്കെടുക്കണം അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് അക്കാഡമിക്ക് ആയിട്ടുള്ള ഒരു അറിവ് മാത്രം പോരാ മറിച്ച് നമുക്ക് പരന്ന ഒരു വായന വിശാലമായിട്ടുള്ള ഒരു വായന ആവശ്യമാണ് ഉയർന്ന ചിന്തയാവശ്യമാണ് ഉയർന്ന ഭാവനശേഷി ആവശ്യമാണ് നല്ല ഭാഷാനൈപുണികൾ നമ്മൾ സ്വായക്തമാക്കേണ്ടതാണ് അതൊക്കെത്തന്നെ നമ്മൾ കാലികമായിട്ടുള്ള പുതിയ പുതിയ അറിവുകളെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം പുത്തൻ അറിവുകളെ സ്വാംശീകരിക്കണം അപ്പോൾ നമുക്ക് അറിയാം എല്ലാ മേഖലകളിലും പുതിയ പുതിയ അറിവുകളുടെ ലോകത്തേക്ക് കടന്നുവന്നു കൊണ്ടിരിക്കുകയാണ് ലോകം ഈ ഒരു വിരൽത്തുമ്പിലേക്ക് അല്ലെങ്കിൽ കമ്പ്യൂട്ടർൻ്റെ സഹായത്തോടെ ലോകം മുഴുവനും

ക്ലാസ് മുറി പോലെ ആയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അത്തരം ഇൻ്റർനെറ്റിലൂടെയും ഒക്കെ നമ്മൾ ധാരാളം വിവരങ്ങളൊക്കെ അറിഞ്ഞ് അവയെ മനസ്സിൽ വെച്ച് മനനം ചെയ്ത് ഏറ്റവും നല്ല രീതിയിൽ നമ്മുടേതായിട്ടുള്ള സൃഷ്ടികൾ എഴുത്തുകളിലൂടെയൊക്കെ കൊണ്ടുപോകണം അച്ചടക്കം എന്നു പറയുമ്പോൾ അവിടെ നിശബ്ദതയല്ല നമ്മൾ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് മറിച്ച് അത് ഏറ്റവും ഫലപ്രദമായ രീതിയിൽ ഏറ്റവും നന്മ വെളിപ്പെടുത്തുന്ന രീതിയിൽ ഒന്നിനും ഒരു രാജ്യത്തിനോ വ്യക്തികൾക്കോ ഒന്നും ദോഷമുണ്ടാകാത്ത രീതിയിൽ നമ്മുടെ സംവിധാനങ്ങളെ ഒക്കെ ദോഷമുണ്ടാകാത്ത രീതിയിൽ വേണം അതിനെ നമ്മൾ കാണുവാനും അവതരിപ്പിക്കുവാനും എന്നുള്ളതാണ് എന്റെ എളിയ അഭിപ്രായം